വിദ്യാഭ്യാസം തൊഴിൽ പിന്നെ നേതൃത്വം എന്നീ മേഖലയിൽ കോഴിക്കോട് ജില്ലയിൽ അതായത് യുവജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ അവസരങ്ങൾ വെല്ലുവിളികൾ അവസരങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഗുണവനിലവാരമുള്ള അധ്യാപകരുടെ അഭാവം ഇപ്പം എല്ലാ കോളേജിലും സ്കൂളുകളിലും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വളരെ കുറവായിരിക്കും ചിലപ്പോൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടാകും നല്ലവണ്ണം പഠിപ്പിക്കാത്ത ടീച്ചർമാർ ഉണ്ടാകും പിന്നെ കുറേ കുട്ടികൾ നമ്മളെപ്പോലെയുള്ള കുട്ടികൾ ശ്രദ്ധിക്കാത്തവരും ഉണ്ടാകും അപ്പം അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും പറയാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലിൻ്റെ നേതൃത്വത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാർത്തയിൽ തന്നെ കേൾക്കുന്നുണ്ട് അതായത് ഗവൺമെന്റ് ജോലി അതായത് പി എസ് സി എഴുതാതെ തന്നെ ഗവൺമെന്റ് ജോലി അതായത് പാർട്ടി ബേസിൽ ഒക്കെ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി എഴുതാതെ അതായത് പാർട്ടീൻ്റെ പുറകെ നടക്കുന്നവർക്ക് ജോലി കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കും പി എസ് സി കഷ്ടപ്പെട്ട് രണ്ടു മൂന്നു വർഷം പഠിക്കുന്ന പി എസ് സി എഴുതുന്ന റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് ജോലിയില്ല അങ്ങനെ ഒരു അവസരം അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് കോഴിക്കോട് ജില്ലയിൽ അല്ല അതു നമുക്ക് കേരളത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം അതോക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ആണ് അതൊക്കെ